ഹലോ ഹലോ അതേ ആണല്ലോ എന്താണ് ആ പറഞ്ഞോളൂ ആ ഓക്കേ അതെ അതെ ആണോ ആ ഒക്കെ ആണോ സ്റ്റേജ് ഡെക്കറേഷൻ എറൗണ്ട് ട്വൽവ് തൌസൻഡ് അങ്ങനെയൊക്കെ ഉണ്ട് ഓക്കേ ആ ആ ആ ആ ആ ആ ആ ആ

ഒക്കെ ആ ആ ആ ആ ഉണ്ട് ഉണ്ട് ആ ആ ഉണ്ട് ആ ആ ആ ഓരോന്നിനും ഓരോന്നിൻ്റെ വിലയാണ് റോസിന് ആണെങ്കിൽ തൗസൻഡ് ഉണ്ടാകും പിന്നെ അല്ല അല്ല ഒരു അതായത് ഒരു ബൊക്കെ അങ്ങനെ ഉദ്ദേശിക്കുന്നതാണോ ഒരു കെട്ട് അങ്ങനെ പറയുന്നില്ലേ അതിന് ഒരു തൗസൻഡ് അങ്ങനെ റേറ്റ് ആണ് പറയുന്നത് ആ അതെ അതെ ആ ആ അതെ അതെ ആ ആ ആ ആ

ടോട്ടൽ ഒരു ത്രീ ഫോർ ലാക്ക് അങ്ങനെ വരും അല്ല ഓൾമോസ്റ്റ് എല്ലാം കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ആ അതെ അതെ എല്ലാം കൂട്ടിയിട്ട് അങ്ങനെയാണ് പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾ ഫിക്സ്ഡ് റേറ്റ് ആണ് ഇപ്പോൾ സീസൺ ഒന്നുമല്ലല്ലോ അപ്പോൾ നോക്കാം ഞങ്ങൾ കഴിയുന്ന അത്രയും ഡിസ്കൗണ്ട് ആക്കിയിട്ട് തരാൻ ശ്രമിക്കാം ഓക്കേ ഓക്കേ ഓക്കേ ശരി മാഡം ഞാൻ ചെയ്ത് തരാം ഓക്കേ ഓക്കേ ശരി ഡൺ ഓക്കേ